ഹലോ ഡീ റ്റീ ഡീ സീ കൊറിയർ സെൻ്റർ ആ എവിടെയാണ് സാർ എവിടെയാണ് സാർ ആ എവിടെയാണ് സാർ അമ്പൂരിയിലാണോ ആ ഓക്കെ ഒരു എപ്പോഴാണിങ്ങനെ ഇത് ഏത് സമയത്താണെന്ന്

ഓക്കെ അതിന് ഡാമേജ് എന്തെങ്കിലും പറ്റിയിരുന്നോ സാർ ഡാമേജ് എന്തെങ്കിലും ഇപ്പോൾ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി ഓഹ് ഓക്കെ ആ ആ ഓക്കെ സാർ ഞങ്ങളത് പുതിയാളാണ് കൊറിയർ സർവീസ് സെൻ്ററിൽ നിന്ന് പുതിയ ആളാണ് വന്നത് അപ്പം ഞങ്ങൾക്ക് ഇത് ഇതിങ്ങനെ സംഭവിക്കാത്തതാണ് ഞങ്ങളതിൻ്റെ അതിനു വേണ്ട എന്താണെന്നു വച്ചാൽ ആ ഞങ്ങൾ ആ അവർ വിളിച്ചില്ലായിരുന്നോ സാ അവർ ആ പയ്യനെ വിളിച്ചില്ലായിരുന്നോ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ഞങ്ങൾ ഹലോ അല്ല ഞങ്ങൾ ഇത് ഇങ്ങനെ അധികം സംഭവിക്കാത്തതാണ് ഞങ്ങളത് വേണ്ട നടപടിയെടുത്തോളാം ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ എന്താണ് പൊട്ടിയത് പൊട്ടിയതാണോ സാർ ഓക്കെ അതിൻ്റെ കൊമ്പൻസേഷൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളത് ചെയ്യാം സാർ ഓക്കെ ഒരു ഓക്കെ നിങ്ങളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളുമെല്ലാം ഒന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ നോട്ട് ചെയ്തിട്ട്

സാധനവെന്തുവാണ് സാർ ലാപ്ട്ടോപ്പാണോ ഓക്കെ ഡിന്നർ സെറ്റ് ഓക്കെ ഓക്കെ ആ മൊത്തവും പൊട്ടിയായിരുന്നോ സാർ മൊത്തവും പൊട്ടിപ്പോയി ഒരു ഫോട്ടോ എടുത്തിങ്ങോട്ട് അയച്ചു തരണേ സാർ ഞാനൊരു എൻ്റെ നമ്പര് തരാം അതിൽ ആ വാട്സപ്പിലോട്ടൊന്ന് സെൻ്റ് ചെയ്യണേ ഓഹ് ഓക്കെ ഓഹ് ഡെലിവറി ഏജൻ്റിൻ്റെ പേര് അറിയാമോ സാർ ഒന്നു പറയാമോ ഓക്കെ ആ ചെറുക്കൻ്റെ നമ്പർ ഏതെങ്കിലും അറിയാമോ ആ പയ്യനെ വിളിച്ചുവെന്ന് പറഞ്ഞല്ലോ ഓക്കെ ഓക്കെ ഓഹ് ഞങ്ങളതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കി കോമ്പൻസേഷൻ ഈ സാധനം എവിടെ നിന്നാണ് സാർ വാങ്ങിച്ചത് തിരുവനന്തപുരത്തു നിന്ന് ഞങ്ങളത് പുതിയത് പുതിയതേതെങ്കിലും ഒരെണ്ണം വാങ്ങുകയോ അല്ലെങ്കിൽ അതിൻ്റേതായ ഈക്വലായിട്ട് അതിൻ്റെ വാല്യു അനുസരിച്ചെന്താണെന്ന് കോമ്പൻഷേഷൻ എന്തെങ്കിലും ചെയ്യാം പൈസ പൈസയായിട്ടാണെങ്കിൽ പൈസയായിട്ടോ അല്ലെങ്കിൽ കാശ് എത്രയായി സാർ ആയിരത്തി ഇറുന്നൂറ് രൂപ ഓക്കെ ഞങ്ങൾ മുകളിൽ മുകളിലോട്ട് സംസാരിച്ചിട്ട് ഒന്നതിൻ്റെ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് ഞങ്ങൾ അറിയിക്കാം സാർ ഒരു ടൂ ഡേയ്സിന് അകത്ത് ഞങ്ങൾ അറിയിക്കാം ഓക്കെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാംകൂടി ഒന്ന് വാട്സ്പ്പിലോട്ട് വാട്സപ്പ് ചെയ്യുക അതിൻ്റെ പേരും ഡീറ്റേയ്ൽസും കൂടെയിട്ട് ഓഹ് ഇതിന് ഞങ്ങളുടെ സാറ് നിങ്ങളെ വിളിച്ചോളും ഓക്കെ പിന്നെ

അതിൻ്റെ ആവശ്യമൊന്നുമില്ല സാർ ഞങ്ങൾ ഉടൻ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ വിളിച്ച് ഇൻഫോം ചെയ്തിട്ട് ഓഹ് ബാക്കിക്ക് എന്താണെന്നു വെച്ചാൽ ചെയ്യാം ഓഹ് ഒരു കമ്പ്ലൈൻ്റായിട്ട് എഴുതി തരുന്നത് ഒന്ന് കുറച്ചുകൂടി ബെറ്ററായിരിക്കും ഓക്കെ വിവരങ്ങൾക്ക് ഓക്കെ ആ ആ ആ അങ്ങ് അവിടെ വന്നു വാങ്ങിച്ചോളാം ഓക്കെ ഓക്കെ ഓക്കെ സാർ ഓക്കെ പറഞ്ഞോളു ഇല്ല ഇല്ല സോറി സോറി ഇതാ ഇതുപോലെ ഇനി ഉണ്ടാകാതെ ഞങ്ങൾ സൂക്ഷിച്ചോളാം സാർ ഓക്കെ ഏയ് ഇല്ല ഇല്ല ഓക്കെ ഓക്കെ ഈ ഇതുപോലെ ഇനി സംഭവിക്കാതെ ഞാൻ ഓക്കെ ഓക്കെ ഓക്കെ ഞങ്ങൾ ഇതിന് വേണ്ട നടപടിയെടുത്തോളാം ഞങ്ങൾ ഇനി ശ്രദ്ധിച്ചോളാം സാർ ഓക്കെ ഓക്കെ ഒരിക്കലത്തേക്ക് സോറി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി ഓക്കെ ശരി ഓക്കെ സാർ ഓഹ് ഓഹ്